എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഒരു സോളോ ട്രിപ്പ് പോയാൽ കൊള്ളാമെന്നുണ്ട് അതായത് ബെർലിനിൽ നിന്ന് യൂറോപ്പിലേക്ക് യൂറോപ്പിലുടന്നിളമുള്ള നിരവധി സ്ഥലത്തേക്കാണ് എനിക്ക് പോകേണ്ടത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലമായിട്ട് ഇന്നേവരെ ഫ്ലൈറ്റ് ദൂരത്ത് നിന്ന് കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് അതില് കയറിയിട്ടൊന്നുമില്ല അപ്പം എന്തായാലും ആദ്യമായിട്ട് പോകുന്നതല്ലേ ബിസിനസ് ക്ലാസ്സില് പോകണമെന്നാണ് ആഗ്രഹം അതിന് എത്ര പൈസ ചെലവാകുന്നു എവിടെയൊക്കെയാണ് എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്നോ എന്തൊക്കെ ഇപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നോ ആ ഒന്നും എനിക്കറിയില്ല അപ്പം അതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നുണ്ടായിരുന്നു അതിന് വേണ്ടി ചോദിക്കുന്നു ഇപ്പോൾ നിലവിൽ നമ്മള് പോകുവാണെങ്കിൽ എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ബിസിനസ് ക്ലാസ്സൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ലക്ഷറിയായിട്ടുള്ള സെറ്റപ്പിലായിരിക്കും നല്ല ഫുഡ് നല്ല കാര്യങ്ങള് എല്ലാം കിട്ടും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ സോളോ ട്രിപ്പ് പോകുവാണെങ്കിൽ എത്ര രൂപ ചെലവുണ്ടാവും ഈ പറഞ്ഞ ഈ റൂട്ടുകളിലൂടെയൊക്കെ ആണെങ്കില് ഇപ്പം എത്ര ദിവസം കൊണ്ട് എത്തും എവിടുന്നാണ് നമ്മള് ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് എയർപോട്ടിലാണ് പോയിട്ട് കയറേണ്ടത് ഇതിനെപ്പറ്റിയിട്ടൊക്കെ അറിയണം